സംസ്കൃതം ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകൾ മലയാള ഭാഷയെ എങ്ങനെ എങ്ങനെയാണു സ്വാധീനിച്ചത് എന്നതു ചോദിക്കുകയാണെങ്കിൽ സംസ്കൃതം എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു അടിസ്ഥാന ഭാഷയാണ് മലയാള ഭാഷയുടെ മലയാള ഭാഷ അതുപോലെ തന്നെ തമിഴ് കന്നഡ തുടങ്ങിയ ഭാഷകളുടെ അടിസ്ഥാനമെന്ന്എന്നുള്ളതു തന്നെ അതു സംസ്കൃത ഭാഷയാണ് കേരളീയരുടെയും പ്രധാനമായി കേരളത്തിലെ ഹിന്ദുക്കളുടെ പ്രധാന ഒരു ഭാഷയാണ് സംസ്കൃതം എന്നുള്ളത് സംസ്കൃതം എന്നുള്ളത് കേരളത്തിലെ വേദങ്ങളുടെയും ഹിന്ദു പുരാണങ്ങളുടെയും അടിസ്ഥാനമായൊരു ഭാഷയാണ് സംസ്കൃതം എന്നു സംസ്കൃതം എന്നുള്ളത് അതുപോലെ തന്നെ ഇംഗ്ലീഷ് എങ്ങനെയാണു മലയാള ഭാഷയെ സ്വാധീനിച്ചത് എന്നതിനെക്കുറിച്ചു ചോദിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് എന്നുള്ളത് ഒരു ഗ്ലോബൽ സാമൂഹിക ഭാഷയാണ് അതോടുകൂടിത്തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പുതിയ കാലഘട്ടത്തിൽ ഇംഗ്ലീഷിൻ്റെ പഠനവും അതുപോലുള്ള ചർച്ചുകളും വളരെയധികം നീണ്ടുനിൽക്കുന്ന ഒരു കാലത്തിൽ കാലഘട്ടത്തിൽ മലയാള ഭാഷയിലും മലയാള ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയ്ക്കു വളരെയധികം സ്വാധീനമുണ്ട് അതുപോലെ തന്നെ മറ്റു ഭാഷകളെക്കുറിച്ചു സംസാരിക്കുകയാണെങ്കിൽ ഹിന്ദി ഉറുദു പോലെയുള്ള ഭാഷകളും മലയാള ഭാഷയെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ഇവയെല്ലാം സ്വാധീനിക്കപ്പെട്ട ഒരു ഭാഷയാണ് മലയാള ഭാഷ എന്നുള്ളത് ഹിന്ദിയെ ഹിന്ദിയെക്കുറിച്ചു സംസാരിക്കുകയാണെങ്കിൽ ഹിന്ദി എന്നുള്ളത് നമ്മളുടെ ഇന്ത്യയുടെ പ്രധാന ഭാഷയാണ് അതുകൊണ്ട് അതോടൊപ്പം തന്നെ അതു മലയാള ഭാഷയെ നല്ല നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏതൊരു രാജ്യത്തു പോവുകയാണെങ്കിലും മലയാളികൾ ധാരാളമായി മറ്റു രാജ്യങ്ങളിൽ പോയി പാർത്തവിടെ അവിടെ നിന്നു സമ്പാദിച്ചു കൊണ്ടുവരുന്നവരാണ് മലയാളികളിൽ ഒരു നല്ലൊരു ശതമാനം വരെ പ്രവാസികളാണ് അത് അതോടുകൂടി തന്നെ അവർക്ക് ഇംഗ്ലീഷ് അറിയുക എന്നുള്ളതു വളരെയധികം അനിവാര്യമാണ് കേരളത്തിൽ കേരളത്തിലും കേരളത്തിന് പുറത്തും ഇംഗ്ലീഷ് ഭാഷ അവിടെയുള്ള കമ്പനികളിലും സർക്കാർ ഓഫീസുകളിലുമെല്ലാം ഇംഗ്ലീഷ് വളരെയധികം പ്രാബല്യമുള്ള ഒന്നാണ് അതോടുകൂടെത്തന്നെ ഇതു ഇതോടൊക്കെ ഒപ്പം തന്നെ ഇംഗ്ലീഷ് ഭാഷയും സംസ്കൃതം പോലെയുള്ള പല പല ഭാഷകളും നമ്മുടെ മലയാളം ഭാഷയെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ഭാഷ എന്നുള്ളത് ഈയൊരു പുതിയ കാലഘട്ടത്തിൽ നല്ല രീതിയിൽത്തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്